നമ്മുടെ പ്രദേശത്തേ സ്കൂളുകളിൽ ഒരുപാട് അസൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നേ ടീച്ചേഴ്സിൻ്റെ പട എന്താ ഇത് വിദ്യാഭ്യാസ എല്ലാ പഠന നിലവാരത്തിൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ കുറവ് പിന്നെ ക്ലാസ് റൂമ് ക്ലാസ് റൂമുകളുടെ അഭാവം എന്നാ ക്ലാസ് റൂമുകളില്ലാത്തത് ക്ലാസ് റൂമുകളുടെയൊക്ക് സൗകര്യങ്ങളുടെ ലഭ്യ എന്നാ ലഭ്യതക്കുറവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കൂള് സ്കൂളുകൾ പഠനത്തെ പിന്നോട്ട് നയിക്കുന്നതിന് ഉള്ള ഘടകങ്ങള് പിന്നേ നല്ല നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകൾ നല്ലത് ഹൈട്ടെക് ക്ലാസ്റൂമുകളാ വിദ്യാഭ്യാസ കാലത്ത് എന്നാ നമ്മുടെ ക്ലാസുകളിൽ എന്നാ ബെഞ്ച് ഡെസ്ക് എന്നിവ എന്നതിൻ്റെയെക്കെ അപ്രാപ്യത മൂലം അപ്രാപ്യത ഒരുപാടുണ്ട് പിന്നെ ടീച്ചേഴ്സിനേ നല്ല രീതിയിലുള്ള പഠന പഠിപ്പിക്കുന്നതിൻ്റെ കുറവും പിന്നെ പിന്നെന്താ കുട്ടികൾക്ക് ലഭ്യമായ പഠന സാമഗ്രികളില്ലാത്തത് ന നല്ല എന്നാ എന്നാ കമ്പ്യൂട്ടർ ലാബ് അങ്ങനെയുള്ള പഠനത്തിൻ്റെ ലാബുകളുടെ സൗകര്യക്കുറവ് പിന്നങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നേ യാത്രാ സൗകര്യങ്ങളുടെ ഇത് എന്ന് എന്ന് വെച്ചാൽ ഉൾപ്രദേശങ്ങൾളക്കെയാണ് വണ്ടികള് എന്നാ സ്കൂൾ കുട്ടികളേ സ്കൂളിൽ കൊണ്ടുവരാനുള്ള വണ്ടികളുടെ ലഭ്യതക്കുറവ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് സ്കൂളുകളിൽ ഉണ്ട് പിന്നെ എന്നാ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എന്ന എന്നാ മോശ സാഹചര്യങ്ങള് മോശ സ്ഥലങ്ങളതായത് ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് ഉള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വരാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള വണ്ടികളുടെ സൗകര്യക്കുറവൊക്കെയാണ് ചില സ്കൂളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അത്യവശ്യമുള്ളവരുടെ ടോയ്ലറ്റ് സൗകര്യക്കുറവുകൾ അങ്ങനെ എല്ലാ എല്ലാ എല്ലാവിധ തിനും കുറവാണ് നമ്മുടെ സ്കൂളുകളുടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികള് പിന്നീട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പഠന നിലവാരം ഏറ്റവും മെച്ചപ്പെടും ഏറ്റവും നല്ല സൗകര്യങ്ങളുണ്ടെങ്കിൽ കുഞ്ഞിന് കുട്ടികൾ ധാരാളമായിട്ട് സ്കൂള്കൾള് പഠിക്കാൻ വരുന്നതിനും നല്ല രീതിയിൽ തന്നെ സ്കൂളുകളുടെ നിലവാരം ഉയർന്ന് നിൽക്കുന്നതിനും സാധിക്കുന്നതാണ് പിന്നെ അങ്ങനെ അത്യാവശ്യം യാത്രാ സൗകര്യങ്ങള് എന്നാ സ്കൂളിൽ ക്ലാസ് റൂമുകൾ നല്ല ഹൈട്ടെക് ക്ലാസ്റൂമുകളുടെ അപര്യാപ്തത ഇതെല്ലാം നമ്മുടെ സ്കൂളുകളുടെ സ്കൂളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് പിന്നേ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ അദ്ധ്യാപകരുടെ അപര്യാപ്തത അദ്ധ്യാപകരുടെ കുറവു മൂലം സംഭവിക്കുന്നത് ഇതെല്ലാം നല്ല നല്ല രീതിയിൽ അദ്ധ്യാപനം നടത്താൻ ഇല്ലാത്ത അദ്ധ്യാപകരുള്ള സ്കൂളുകളുടെ പഠന നിലവാരവും ഒരുപാട് മോശം രീതീലേക്കാണ് സ്കൂളുകളുടെ പഠന നിലവാരം പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നത്